ഹലോ ഇത് ഞാൻ തോട്ടക്കാടുന്നാണെ വിളിക്കുന്നതേ കാന്താരി റെസ്റ്റോറൻറ്റല്ലേ എനിക്ക് നാളത്തേക്ക് നാളെ ഒരു ഉച്ചയാ ഉച്ചക്കത്തേക്ക് കുറച്ച് ഫുഡ് ഓഡറെയ്യാന് വേണ്ടിയിട്ടായിരുന്നു എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എൻ്റെ സ്ഥലമെന്നു പറയുന്ന തോട്ടയ്ക്കാട് ഉമ്പിടി പി ഒ രാജമറ്റം എന്ന സാ അഡ്രസ്സിലാണ് നിങ്ങൾ വരേണ്ടത് ഞങ്ങള്ക്ക് ആദ്യമായിട്ട് വേണ്ടത് ആദ്യം ഒരു സൂപ്പ് വേണം അത് ഹോട്ട് ആൻ സോര് സൂപ്പ് കിട്ടുവാണെങ്കില് നല്ലത് നോൺ വെജ്ജ് അതിന് എത്ര രൂപയാകും പിന്നെ അതിൻ്റെ കൂടെ അതുകഴിഞ്ഞിട്ടൊരു കട്ലെറ്റ് സാലഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ ലെഗ് പീസ് ഗ്രില്ലെയ്തത് പത്തിരിയും പിന്നേ റൈസ് ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസും വേണം അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും

അതിൻ്റെ കൂടെ ഒരൂ നമ്മുടെ ഈ വലിയ സൈസ് മീനില്ലേ നമ്മുടെ നെയ്മീൻ നെയ്മീൻ ഒരോ പീസ് വെച്ച് എനിക്ക് വേണ്ടതൊരു പത്ത് ഡിഷെസാണ് വേണ്ടെ പത്ത് ഡി ഡിഷെസെന്ന് പറയാൻ പത്ത് എണ്ണം പത്ത് പേർക്കുളളതാണ് വേണ്ടത് ഇത്രയും ഐറ്റംസ് പത്ത് പേർക്കുള്ളതാണ് വേണ്ടത് അത് ഏകദേശം നിങ്ങളുടെ കാന്താരി റെസ്റ്റോറൻറ്റി നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ഉണ്ട്

പൈസ എങ്ങനെയാണ് ചെയേണ്ടതെന്ന് നിങ്ങള് പറഞ്ഞാല് മതി ഗൂഗിൾ പേ ചെയ്യണമേ അങ്ങനെ ചെയ്യാം അല്ലെങ്കില് ക്യാഷ് ഓൺ ഡെലിവറി ആണേൽ അങ്ങനേയും ചെയ്യാം നിങ്ങള്ക്ക് എടുപ്പം എന്നു വച്ചാല് അങ്ങനെ തരാം നിങ്ങള് സാധനം എത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വല്ലതും ആവശ്യമുണ്ടെങ്കിലും അതുംകൂടെ കാണിക്കണേ നിങ്ങൾക്ക് നിങ്ങള് നൽകുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ നന്നായിരിക്കണം ജി എസ് ടി നമ്പര് ജി എസ് ടി ബില്ലായിരിക്കണം ഞങ്ങള്ക്ക് വേണ്ടത് കാരണം ഞങ്ങള്ക്ക് ചില സന്ദർഭത്തില് ഇതാവശ്യമാണ് ഇതിപ്പോള് ഞാൻ ഓഡർ ചെയ്യുന്നത് ഞങ്ങളുടെ കുടുംബത്തിലേക്കല്ല ഞങ്ങളുടെ ഓഫീസിലേക്ക് വേണ് ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് വേണ്ടി കൂടിയാണ് അപ്പോള് ഓഫീസിലെ ഓഡിറ്റിങ് നടത്തുന്നതാണ് അപ്പോള് ആ സമയത്തേക്ക് ബില്ലിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ജി എസ് ടി ബില്ല് തന്നെ വേണം ഞങ്ങളുടെ ഫങ്ഷൻ പന്ത്രണ്ടരക്കാണ് പന്ത്രണ്ടരക്ക് ആവുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ടേ കാലെങ്കിലും ആവുമ്പോഴത്തേക്കും നിങ്ങള് സ്ഥലത്ത് ഞാന് പറയുന്ന സ്ഥലത്ത് തോട്ടയ്ക്കാട് എത്തിക്കാന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ വരുന്ന ആളുടെ കയ്യില് എൻ്റെ നമ്പര് ഞാനീ വിളിച്ചിരിക്കുന്ന നമ്പര് കൊടുത്താല് മതി ഞാനത് അയാള് വിളിക്കുമ്പോള് ഞാനത് എടുത്തോളാം ഈ ആളുകൾക്ക് സെർവീയ്യാന് വേണ്ടിയിട്ട് ആൾക്കാരെ ഞങ്ങളഅക്കാവശ്യമില്ല ഞങ്ങള് തന്നെ സെൽഫ് സർവീസ് ചെയ്തോളാം സെൽഫ് ആയിട്ടുള്ളത് ഓക്കെ താങ്ക് യു കേട്ടൊ ഇത്രയൊക്കെയാണ് ബില്ല് ഡീറ്റൈൽസ് കൃത്യമായിട്ട് കൊടുത്തുവിടാന്വേണ്ടിയിട്ട് ഓർത്തേക്കണം കേട്ടോ ഓക്കെ താങ്ക് യു നിങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അഭിപ്രായം നിങ്ങള്ക്ക് സെൻറ്റിയ്യുന്നതാണ് ഓക്കെ താങ്ക് യു